ആ ചെടിക്കടയല്ലേ ചെടി വിൽക്കുന്ന കട ആ അല്ലാണ്ട് ചെടികളിൽ ചെടികളുണ്ടോ ചെടികൾ ആ ആ ആ അപ്പം അല്ലാണ്ട് നമ്മുടെ ഫ്ലവറിങ് പ്ലാൻറ്റിൻ്റെ ഒന്നുമില്ല അല്ലേ ആ ഇ പച്ചക്കറി പച്ചക്കറി അല്ലേ ആ ശരി ശരി ശരി അപ്പം എനിക്ക് പയറിന് ഇപ്പം വിത്തൊണ്ടല്ലോ അല്ലെ പയറ് വെണ്ടയ്ക്കാ അല്ല വള്ളിപ്പയറ് ആ അപ്പം അതിൻ്റെ ഫീസായിട്ടായിരിക്കും കൊടുക്കുന്നത് അല്ലേ തൈകളുണ്ട് ആ അപ്പം ഞാൻ എനിക്ക് വരാൻ എപ്പോഴാണ് നിങ്ങളുടെ വർക്കിംഗ് ടൈം എനിക്ക് വന്ന് കണ്ട് വാങ്ങാനാണ് അപ്പം നിങ്ങക്കടെ കൈയ്യിൽ ഇത് കൃഷിക്കുള്ള ടൂൾസ് എന്തൊക്കെയാണ് ഉള്ളത് ആ ഉണ്ടല്ലേ ആ അപ്പം എൻ്റെ ആവശ്യങ്ങൾക്കുള്ള എല്ലാം കാണും അവിടെ അല്ലേ ആ പിന്നെ പിന്നെ ഈ ഫെർട്ടിലൈസേഷൻന്ന് പറയുമ്പോൾ കെമിക്കലാണോ അതാ നമ്മുടെ എക്കോ ഫ്രണ്ട്ലി നമ്മുടെ നാ ജൈവ

ആ എനിക്ക് ജൈവ എനിക്ക് ജൈവ വ പച്ച ആ പച്ചക്കറി കൃഷിക്കായത് കൊണ്ട് എനിക്ക് ജൈവ വളങ്ങൾ മതി എന്നാന്ന് ചോദിച്ചാൽ അത് നമ്മൾ കഴിക്കേണ്ടതല്ലേ എ ചാണകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടോ ചാണകപ്പൊടി എല്ലു പൊടി ടി

ചെടിച്ചട്ടികളുണ്ടോ ആ മൺചട്ടികൾ ആ അപ്പം എനിക്ക് സമയം ഉള്ളപ്പം ഞാൻ എല്ലാ ദിവസോം ഓപ്പണിങാണല്ലോ അല്ലേ ആ അപ്പം ഞാൻ എൻ്റെ ടൈം പോലെ വന്നേക്കാവെ അപ്പം എനിക്ക് ഈ ആ നോക്കി നോക്കി വാങ്ങേണ്ടതല്ലേ എല്ലാം അപ്പം എനിക്ക് ഫെർട്ടിലൈസേസ് ആ അപ്പം ഓർഗാനിക്ക് ആയത് കൊണ്ട് എനിക്ക് താല്പര്യമുണ്ട് അപ്പം ഞാൻ വരാം കേട്ടോ ആ ശരി ശരി ശരി വിളിച്ചോളാം